ഇപ്പോൾ എന്തായാലും വിദ്യാഭ്യാസത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസൊക്കുള്ളൊരു ടൈമാണല്ലൊ അപ്പോൾ നമ്മൾ ഇനി ലൈഫിലെന്താവണം എങ്ങനിരിക്കണം എന്നൊക്കെ നമ്മുടെ വിദ്യാഭ്യാസം അനുസരിച്ചിട്ടന്നെയാണ് ഇമ്മളിപ്പം ഇരുപത് കൊല്ലം കഴിയുമ്പം നമ്മൾ ഏത് അവസ്ഥയിലാണെന്ന് പറയണെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം വേണം ഇപ്പം നമ്മൾ പഠിക്കാത്തൊരാളാണെങ്കിൽ ഇവിടെ നമ്മുടെ സ്റ്റഡീസ് കണ്ടിന്യു ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഒരു ഇരുപത് കൊല്ലാവുമ്പോൾ നമ്മൾ ഏതൊരു സാഹചര്യത്തിലെത്തുന്നു നമ്മൾ ചിന്തിച്ചിരിക്കും അപ്പോൾ വിദ്യാഭ്യാസം എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് പരിചയമുള്ള ഏതൊരാളും നന്നായി പഠിക്കണം എന്ന് തന്നെയാണ് എനിക്കാഗ്രഹം പഠിച്ചാൽ മാത്രം പോരാ അത് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കോൺട്രിബ്യുട്ട് ചെയ്യാൻ കഴിയണം അതായത് നമ്മളിപ്പം ഒരു ജോലി ചെയ്യാണെങ്കിൽ നമുക്ക് ആ ഒരു ജോലി കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാനും നമ്മൾക്ക് നമ്മൾ നമ്മളുടെ ആൾക്കാരെ നമുക്ക് പരിചയമുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും കഴിയണം അപ്പോൾ വിദ്യാഭ്യാസത്തിന് വ ഇപ്പം എനിക്ക് പരിചയമുള്ള ഒരാൾ ഇപ്പമെൻ്റെ സഹോദരനെയാണേലും ചേച്ചിയാണേലും അനിയനാണേലും ആൾക്ക് അത്യാവശ്യം ലൈഫിൽ ആവശ്യമായ വിദ്യാഭ്യാസം വേണം വേണം കാരണം ഇപ്പം അമ്മടെ സൊസൈറ്റിയാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡായി കൊണ്ടിരിക്കുകയാണ് അമ്മക്ക് ഇപ്പം പണ്ടത്തെ ഒരു നിലവാരത്തിലല്ല നമ്മുടെ ഇപ്പം പഠനവാണെങ്കിലും അതെപോലെ തന്നെ മീഡിയാസിലും എല്ലാത്തിലും ഭയങ്കര ഒരു അഡ്വാൻസ്മെൻറ്റുണ്ടാവുന്നുണ്ട് അപ്പം നമുക്ക് കാലത്തിനനുസരിച്ച് സഞ്ചരിക്കണെങ്കിലും അതിനനുസരിച്ച് ചിന്തിക്കണെങ്കിലും നമ്മുടെ പിയർ ഗ്രൂപ്പിൻ്റെ ഇപ്പം നമ്മുടെ കൂടിള്ളവർടൊപ്പം നമുക്ക് അവരുടെ നിലവാരത്തിനൊത്ത് നിക്കണെങ്കിലും ആ വിദ്യാഭ്യാസം തന്നെ വേണം അപ്പം ഒരേ സൊസൈറ്റിലുള്ള ആൾക്കാരിൽ കുറച്ച് പേർ പഠിച്ചവരും കുറച്ച് പേർ പഠിക്കാത്തവരുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഇക്വാളിറ്റിയുണ്ടാവില്ല അപ്പം എന്നെ സംബന്ധിച്ചടത്തോളം എന്താണ് നമ്മൾ പഠിക്കണം നമുക്ക് ഒരു ജനറലായിട്ട് നമ്മുടെ സൊസൈറ്റിലെന്താണ് നടക്കുന്നത് അത് മാത്രമല്ല നമുക്ക് നമ്മുടെ വിവരം നോളജ് ഇപ്പം കൂടുതലറിവ് വേണം ചിന്തിക്കാനൊക്കൊള്ളൊരു പാർട്ടി വേണം അതെപോലെ തന്നെ നമ്മുടെ ലൈഫ് സെക്വറാവാൻ വേൻ വിദ്യാഭ്യാസം ഭയങ്കര ഇമ്പോർട്ടൻറ്റന്നെയാണ്